ഞാനെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചോണ്ടിരുന്ന കാലഘട്ടത്തില് സോഷ്യൽ അ ആ ഒരു സബ്ജെക്റ്റിനകത്ത് ഇത്പോലെ കളക്ഷൻ ബുക്കുണ്ടായിരുന്നു അപ്പോൾ അതില് നേ ഞാൻ ആദ്യം ശേഖരിച്ചത് എനിക്കോർമ്മയില്ല അപ്പോൾ എന്ത് തന്നെ ആയാലും ഞാനീ സ്റ്റാമ്പുകള് കല്ലുകളൊക്കെ ഒട്ടിക്കാൻ തുടങ്ങുവായിരുന്നു കാരണം നാണയങ്ങള് ഞാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പക്ഷെ ഈ സ്റ്റാമ്പിൻ്റെ എനിക്ക് ഭയങ്കരൊരു കളക്ഷനൊണ്ടായിരുന്നു ശ സ്റ്റാമ്പുകളാണെങ്കിലും കല്ലുകളാണെങ്കിലും അപ്പം ക് കിട്ടുന്ന അനുസരിച്ച് സ്ഥലം അതായത് ഒരു പല ഇടത്തെ അതായത് നമുക്ക് പിൻ നല്ല ഭംഗിയുള്ള സ്റ്റാമ്പുകളുണ്ട് കുഞ്ഞിതും വലുതുവായിട്ടുള്ള അതെല്ലാം നമ്മള് ശേഖരിച്ചപ്പം പല സ്ഥലത്തേയും ഞാൻ ഇങ്ങനെ പല തപ്പി തപ്പി ശേഖരിച്ച് വെക്കുവായിരുന്നു അപ്പം പിന്നീട് നോക്കുമ്പം ഇപ്പം എൻ്റ കൈയ്യിലതില്ല പക്ഷെ വിദ്യാഭ്യാസപരമായിട്ട് നല്ല അറിവ് നമുക്ക് നേടിത്തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ പഴയ കാര്യങ്ങള് ശേഖരിച്ച് വെക്കുകാന്ന് പറഞ്ഞാൽ അത് പിന്നീട് നോക്കുമ്പം ഒരുപാട് യൂസൊള്ളവയാണ് കാരണം അതൊക്കെ അതിൻറ്റേതായ ഓരോ കാലഘട്ടതും ഓരോ സ ഇങ്ങനത്തെ സ വസ്തുക്കൾക്ക് അതിൻറ്റേതായ മൂല്യം ഉണ്ട് അപ്പം അത് അന്നത്തെ കാലത്ത് ഇണ്ടായിരുന്ന മൂല്യമായിരിക്കത്തില്ല ഇന്നത്തെ കാലത്ത് അതിന് പക്ഷെ രണ്ട് രീതിയിൽ നോക്കുവാണെൽ അതിന് അതിൻറ്റേതായ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് അപ്പം എല്ലാം നമുക്ക് അറിവ് നേടുന്നതുമാണ് അറിവ് ഒരുപാട് അടുത്തയാൾക്ക് പകരാൻ പകർന്ന് കൊടുക്കാൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ് അപ്പം ഈ ശേഖരിച്ച് ശേഖരണവസ്തുക്കൾ എപ്പഴാണ് എന്ത് തന്നെയാണെങ്കിലും ഏതാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് അറിവ് നേടിത്തരുന്ന വസ്തുക്കളാണ്